എടാ നമുക്ക് നിൻ്റെ അടുത്ത് എവിടെ എങ്കിലും ട്രഡീഷണൽ ഹൗസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എടാ ആ ഓക്കെ നമുക്ക് അടുത്ത ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ അപ്പം പുറത്തുനിന്ന് വീടിന്റെ അവിടെത്തന്നെ നമ്മുടെ ഫാമിലി ഫംഗ്ഷൻ ആണ് അപ്പം പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അപ്പം അവർക്ക് നമുക്ക് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റപ്പ് ചെഇതുകൊടുക്കാൻ കരുതിയിട്ടാണ് അതായത് എന്താണ് പറയുക ഓൾഡ് ടൈപ്പ് വീഡിയോകളും കാര്യങ്ങൾ ഒക്കെ നമുക്ക് അങ്ങനെ കുറച്ച് ഇതാക്കണം കാരണം അവർ മെയിൻ ആയിട്ട് ഈ സിറ്റിയിൽ ഒക്കെ വളർന്നവർ ആയതുകൊണ്ട് അവർക്ക് ഇതൊന്നും വലിയ പിടി ഉണ്ടാവില്ല അപ്പം നമ്മൾ അതിന്റേതായ രീതിയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ആ നമുക്ക് എന്താണ് വെച്ചാൽ ചെയ്യാം ഈ ഓൾഡ് അതായത് പണ്ട് കാലത്തെ ഈ വിൻറ്റേജ് ടൈപ്പ് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്

ആ അങ്ങനത്തെ ഒക്കെ ആയാലും കുഴപ്പം ഒന്നും ഇല്ല ആ പിന്നെ ഈ അഗ്രഹാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടിപൊളി ആയിരിക്കും

ഉണ്ടാവും അല്ലേ നമുക്ക് റേറ്റ് ഒന്നും ഒരു വിഷയം അല്ലല്ലോ നമുക്ക് എത്ര പേയ്മെൻറ്റ് വേണമെങ്കിലും നമ്മൾ ചെയ്യും അപ്പം അതിന്റേതായ രീതിയിൽ നീ അത് അറേഞ്ച് ചെയ്ത് തരണം അപ്പം അല്ലേ ഇല്ല അത് നമുക്കൊരു കുഴപ്പം ആയിട്ട് തോന്നുന്നില്ല നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് വരുന്നത് വലിയ ഒരു ഡിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ നമുക്ക് അറേഞ്ച് ചെയ്യാം അത്

ഓക്കെ പിന്നെ ഈ ഹട്ട് അങ്ങനെ മറ്റേ ട്രീ ഹട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എല്ലാം സെറ്റ് ആവുമല്ലേ പൂളും കാര്യങ്ങളും അങ്ങനെ ഒക്കെ അറേഞ്ച് ചെയ്തു നമുക്ക് എന്തായാലും അവരെ അവിടേക്ക് ആക്കാം എന്നാൽ ആ നമുക്ക് വന്ന് അത് കാണാൻ പറ്റുവോ നമുക്ക് ഒന്ന് വന്ന് നോക്കാൻ അങ്ങനെ എന്തെങ്കിലും പറ്റുവോ ആ റെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശ്നം അല്ല പിന്നെ എമൗണ്ട് ഒക്കെ നമ്മൾ വേണമെങ്കിൽ പറഞ്ഞ് ഫിക്സ് ചെയുവോ ബുക്ക് ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രീ ബുക്കിംഗ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വയ്ക്കണോ

ആ പറ്റുവെങ്കിൽ നോക്കിയാൽ മതിയല്ലോ അല്ലെ ആ ഓക്കെ എടാ ആ ഞാൻ എന്നാൽ നാളെ വരാം